മത്സ്യത്തൊഴിലാളികൾ കൂടുതലും കടലോര മേഖലകളിലാണ് താമസിക്കുന്നത് അവർ ഒരു ഐക്യമുള്ള ഒരു ജനവിഭാഗമാണ് അവർ നാനാജാതി മതസ്ഥരായ ആളുകൾ ആണ് മത ആളുകളും ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുണ്ട് അവർ ക്രിസ്റ്റ്യാനികളും ഹിന്ദുക്കളും മുസ്ലീങ്ങളുമൊക്കെ ഉൾപ്പെട്ട ഒരു സമൂഹം സമൂഹമാണ് അവർ ഏത് ആഘോഷങ്ങൾ വന്നാലും അവരൊരുമിച്ച് അവരുടെ തന്നെ ഒരു ഉത്സവങ്ങളായിട്ട് പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ഒത്തരുമയോടെയാണ് ആഘോഷിക്കുന്നത് അത് ഇപ്പോൾ ക്രിസ്റ്റ്യാനികളുടെ ഈ ഒരൂ പള്ളിയിൽ ഒരൂ പെരുന്നാൾ വന്നാൽ അവർ എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ച് അവർ ആ ഉത്സവങ്ങൾ വളരെ ആഹ്ളാദത്തോടെ പങ്കെടുക്കാറുണ്ട് അതുപോലെ ഉത്സവം വന്നാലും അവർ അതിൽ ഒരുപോലെ അതുപോലെ അതിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ ഓണം പോലെയുള്ള കേരളം മൊത്തം ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ അവരും വളരെ താല്പര്യത്തോടെ എല്ലാ വർഷവും അവർ വളരെ ഉത്സാഹത്തോടെ അതിൽ പങ്കെടുക്കാറുണ്ട് അത് ഓണത്തിൻ്റെ സമയത്തുള്ള ആ ഗാനകൾ അകലങ്ങളിൽ ആയിരിക്കുന്ന കുടുംബാംഗളുണ്ടെങ്കിൽ അവർ ആ സമയമാകുമ്പോഴത്തേക്കും വീട്ടിൽ വന്ന് അവരെല്ലാവരുംകൂടി ഒരുമിച്ചുകൂടി വളരെ അത് ഗൃഹാതുരത്വത്തോടെ ഉള്ള ഒരു സംഭവമായിട്ട് പരിഗണിച്ച് അവർ അതിൽ ആ വളരെയേറെ ഉത്സാഹത്തോടെ സംബന്ധിക്കാറുണ്ട് അത് ഓണമൊക്കെ അവർ വളരേ കാത്തിരുന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഒരൂ സമയം അത് അവരൊരുമിച്ചുകൂടി ആണ് ഇത് ഓണോത്സവമൊക്കെ ഓണമൊക്കെ ആഘോഷിക്കുന്നത് കാരണം വലിയ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു അന്തരീക്ഷ കാലാവസ്ഥ ഒക്കെ അനുകൂലമായൊരു സമയത്താണ് ഓണമൊക്കെ വരുന്നത് ആ സമയത്ത് എല്ലാവരും വളരെ ഉത്സാഹത്തോടെ അതിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ ചില മത്സ്യത്തിലാളി വിഭാഗങ്ങളെന്നു പറഞ്ഞാൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അവർക്കവരുടേതായ തനിമയോടു കൂടിയുള്ള ഗോത്ര ആചാരങ്ങൾ ഭാഗമായ നൃത്തങ്ങളും രാത്രിയിൽ ആഘോഷങ്ങളും തീ കൂട്ടിക്കൊണ്ടുളള ആഘോഷങ്ങളൊക്കെ ഉണ്ട് അതും അതിലും അവർ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട് വളരെ ഈ അതിനകത്ത് ഇവരുടെ ഈ ഗോത്ര ആചാരങ്ങൾ പ്രകാരമായുള്ള ഈ വിഭാഗങ്ങൾ പങ്കെടുക്കുവാനായിട്ട് അതിൽ കാണുന്നത് ആയിട്ടൊക്കെയുള്ള വിദേശികളുള്ള ആൾക്കാർ വരെ വളരെ താൽപ്പര്യത്തോടെ അതിൽ പങ്കെടുക്കാറുണ്ട് അത് എന്തായാലും ഏത് ഉത്സവമാണെങ്കിലും ഏത് ചില ആളുകളാണെങ്കിലും എന്ത് ആഘോഷമാണെങ്കിലും അവരെല്ലാംകൂടെ വളരെയേറെ ഭംഗി വളരെയേറെ ഉത്സാഹത്തോടെ ഒത്തൊരുമയോടെ ആണ് സഹകരിക്കുന്നത് മറ്റു അവരൊരു ഒരുമയോടുകൂടി എൻ്റെ ഇതെൻ്റെ ആഘോഷമാണ് എന്നുള്ള രീതിയിൽ ആണ് ഇവരെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നത് അത് കുട്ടികളിലൊക്കെ ആണെങ്കിലും ഈ സമയം വളരെ സന്തോഷമാണ് കാരണം അത് കഴിഞ്ഞാൽ അവരേ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവർക്കൊരൂ ആഹ്ളാദിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം ആയതുകൊണ്ട് അവരും വളരെ ഉത്സാഹത്തോടെ ഇത് അതിൽ പങ്കെടുക്കും